തീർച്ചായും ഓരോ വ്യക്തിക്കും അവരുടേതായ സേവിങ്സ് ഉണ്ടാകുന്നത് എറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എപ്പം എത്ര രൂപ ഇപ്പം ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടീൻറ്റെ കയ്യിൽ ഒരു പത്ത് രൂപ കിട്ടിയാൽ അത് ചിലവാക്കാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് അത് സൂക്ഷിച്ച് വെപ്പിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് കാരണം അത് ചിലവായാൽ ഓക്കേ പൈസ സൂക്ഷിച്ച് വെക്കാനുള്ളതല്ല സൂക്ഷിച്ച് എത്ര കാലം വെക്കാനുള്ളതൊന്നു അല്ല അത് ചിലവാക്കേണ്ടത് തന്നെയാണ് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അത് ന്യായമായ അനാവശ്യമായ കാര്യങ്ങളെല്ലാം അതിനാണ് ഈ പൈസ യൂസ് ചെയ്യുന്നത് അപ്പം ഈ പൈസയെല്ലാം ഒന്ന് സൂക്ഷിച്ച് വെക്കാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്കുപയോഗപെടുന്ന രീതിക്ക് കുറെ പൈസയാവുമ്പോൾ എന്തേലും വാങ്ങിക്കാനോ അല്ലേൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനോ സഹായകരമായിരിക്കും അതുപോലതന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉള്ളവരാണ് അപ്പോൾ ഈ പറയുന്നപോലെ നമ്മുടെ ഈ ഒരു പത്ത് രൂപ കിട്ടിയാൽ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കത്തുള്ളൂ അപ്പം ഇ പൈസ സൂക്ഷിച്ച് വെച്ച് കുറച്ച് കാലം അത് സൂക്ഷിച്ച് വെക്കു ആണെങ്കിൽ നമുക്കത് കുറെ കാലം കഴിയുമ്പോൾ നമുക്കിഷ്ടം ഉള്ളപോലെ ജീവിക്കാം അപ്പം ഈ കിട്ടുന്ന പൈസ മുഴുവൻ ആർഭാടമായി ജീവിച്ച് തീർക്കാണ്ട് അതിലൊരു പത്ത് രൂപയോ അല്ലേൽ ഇരുപത് രൂപയോ ഒരു ദിവസം അല്ലേൽ ഒരു മാസം ഒരാഴ്ച എടുത്തു വെക്കു ആണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഈ പത്ത് രൂപാന്ന് പറയുന്നത് ഒരു വലിയ സെയിവിങ്സ് തന്നെയായി മാറും നമുക്ക് ഏത് സമയത്തൊരു പത്ത് രൂപാന്ന് പറയേണ്ടൊരാവശ്യം വരുക നമുക്കെന്ന് പറയാൻ പറ്റുന്നതല്ല ഏത് സമയത്ത് വേണേലും നമുക്കാവശ്യം ഉണ്ടാകുന്നതാണ് അപ്പം ഒരു പത്ത് രൂപയെ ഒരു ദിവസം വെക്കുവാണെങ്കിൽ തന്നെ കുറെ കാലം കഴിഞ്ഞ് എന്തേലും നമുക്ക് പൈസ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അല്ലേൽ എന്തേലും അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട ഒരവസ്ഥ വന്നു അന്ന് നമ്മുടെ കയ്യിൽ പൈസയില്ല അത് നമുക്ക് ഈ ഒരു സാധനം വെച്ച് നമുക്കതിനെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അതുകൊണ്ടന്നെയാണ് ഈ സേവിങ്സന്ന് പറയുന്നത് ചെറുപ്പം മുതലേ കുട്ടികൾക്കിടയിൽ കൊണ്ടുവരെണ്ട ഒരു ശീലമാണ് ചെറുപ്പം മുതലേ അത് കുട്ടികൾക്കിങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്താലേ അവർ അതിൽ ആ ഒരു ബോധത്തിലവർ വളർന്ന് വരത്തുള്ളൂ